ഓക്കെ ഞാൻ പോയ യാത്രയിൽ എനിക്കിഷ്ടപ്പെട്ട യാത്രയെന്നു പറയുന്നത് ഡെല്ലി പോയ യാത്രയാണ് ഡെല്ലിയിൽ എൻ്റെ സഹോദരൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഡെല്ലിയിൽ പോകേണ്ട സാഹചര്യം വന്നു ആളുടെയടുത്ത് അപ്പം ഡെല്ലിയിൽ പ്രധാനപ്പെട്ട യാത്രസ്ഥങ്ങളിലൊക്കെ ഒരു ട്രെയിൻ അങ്ങോട്ട് ഫ്ലൈറ്റിനു തിരിച്ച് ട്രെയിനിലുമാണ് യാത്ര നടത്തിയത് ഡെല്ലി കേട്ടറിവുകളിലും പുസ്തകങ്ങളിൽ വായിച്ചൊക്കെ അറിയാവുന്ന ഡില്ലി മാത്രം ഉണ്ടായിരുന്നുള്ളു ആ ഡെല്ലി കാണാനും ഡെല്ലിയിലെ തെരുവോരങ്ങൾ കാണുവാനും ഡെല്ലിയിലെ ആ ഒരു സാംസ്കാരികമായുള്ള വ്യത്യസ്തതകൾ കാണാനും ഭക്ഷണങ്ങൾ അവരുടെ മാത്രമല്ല നോർത്ത് ഇൻഡ്യൻ ഭക്ഷണ പദാർത്ഥങ്ങൾ വർഷി കഴിക്കാനൊക്കെ അവസരം ലഭിച്ചു പിന്നെ ഇന്ത്യ ഗേറ്റ് റെഡ് ഫോർട്ട് ലോട്ടസ് ടെംപിൾ ഇങ്ങനെ തുടങ്ങുന്ന ടൂറിസ്റ്റുകൾക്കാണുവാനോ കരുൾബാഗ് പോലെയുള്ള വലിയ വലിയ വലിയ മാർക്കെറ്റുകൾ കാണുവാനും അവിടെ അതിലെ അതിലൂടെ യാത്ര ചെയ്യുവാനും ഒക്കെ കൊണ്ട് ഹിന്ദി പോലെയുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കുവാനും ആ അവരായിട്ടൊക്കെ അറിയാവുന്ന രീതിയിൽ ഹിന്ദിയൊക്കെ സംസാരിക്കുവാനൊക്കെ ഒരവസരം ലഭിച്ചു അത്തരത്തിലെ ഒരു രീതിയിലാ ഉള്ള യാത്രയാണ് എനിക്കിഷ്ടപ്പെട്ടത് ഡെല്ലിയാണിന്നെൻ്റെ യാത്രയിൽ ഏറ്റും ഇഷ്ടപ്പെട്ട എൻ്റെ അമ്മയും സഹോദരനും ഒക്കെ ഉണ്ടായിരുന്നു യാത്ര നടത്തുമ്പോൾ അവിടുത്തെ വാഹന സൗകര്യങ്ങളൊക്കെ റിക്ഷ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ സൈക്കിൾ റിക്ഷയിലൊക്കെ യാത്ര ചെയ്യാൻ സാധിച്ചു മെട്രോയിലൊക്കെ യാത്ര ചെയ്തു ബസ്സിൽ യാത്ര ചെയ്തു അങ്ങനെ യാത്രകൾ നടത്തി ഒത്തിരി വ്യക്തികളെ പുതിയ പുതിയ ആളുകളെ കാണാൻ സാധിച്ചു അതാണതിലെൻ്റെ ഇഷ്ടപ്പെട്ടൊരു കാര്യം